ഇപ്പം പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു രോഗമാണ് മുട്ടുവേദന എന്നു പറയുന്നത് അപ്പം അത് നമ്മൾ നാട്ടുവൈദ്യൻ്റെയൊക്കെ അടുത്ത് പോകും അല്ലേ അപ്പം ആ വൈദ്യൻ അപ്പോൾ നമുക്കപ്പോൾ മുട്ട മുട്ടയുടെ വെള്ള കരു എടുത്തിട്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് അത് മുട്ടിൽ തേക്കാൻ പറയും ചില ചില ഇലകൾ ചിലതിൻ്റെയൊക്കെ ഇലകളരച്ചിട്ട് ആ ഇല മുട്ടിൽ തേച്ചുപിടിപ്പിക്കാനായിട്ട് പറയും ആ പിന്നെ പിന്നെ മുട്ടു വേദനയ്ക്ക് പറയുന്നതുപോലെ അവർ തന്നെ ചില ഈ ആയുർ മരുന്നുകളെല്ലാം കൂടെ പൊടിച്ച് ഒരു പൊടി ഉണ്ടാക്കും ആ പൊടി ഉണ്ടാക്കിയിട്ട് അതു നിങ്ങൾ ആ മുട്ടിൽ തോരയ്ക്ക് തോരയ്ക്ക് ഒണങ്ങുന്ന അനുസരിച്ച് പിന്നെയും തോരയ്ക്ക് തോരയ്ക്ക് ഇടാൻ പറയും ചില മരുന്നുകൾ കഞ്ഞി വെള്ളത്തിൽ അല്ലെങ്കിൽ കാടി വെള്ളത്തിനകത്ത് കാടി വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിങ്ങനെ ഇടാൻ പറയും ചില മരുന്നുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അത് തിളപ്പിച്ചിട്ട് അത് ഇത്ര ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം വറ്റിച്ച് ഇരുപത് ലിറ്ററ് രണ്ട് ലിറ്ററൊക്കെയാക്കി അല്ലെങ്കിൽ ഇത്ര കുറച്ച് കുറച്ച് ഇത്രയാക്കി അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഉള്ളത് ഏതു ഭാഗത്താണ് ഉള്ളത്